ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ ഇവിടെ കൂട്ടിലുള്ള പശുക്കളെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നു അത് വൃത്തിയായ കൂട്ടിലാണ് നമ്മൾ അടയ്ക്കുന്നത് അത് എന്തെങ്കിലും ഒര് രീതിയില് അത് ഒര് ഒര് രോഗലക്ഷണം തോ കാണുകയാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ ഈ മൃഗാശുപത്രിയിലോട്ട് അവിടെ കൊണ്ട് പോയി അവിടെ ചെന്നിട്ട് വിവരം പറയും അപ്പോൾ അവര് എന്താണ് പ്രതിവിധിക്കാനുള്ള മരുന്ന് കൊടുക്കാനുള്ള മരുന്ന് തരും അങ്ങനെ ആ ഒരു കാരണവെച്ചാലും ആ ഒരു രോഗം ഉണ്ടാകത്തില്ല പക്ഷെ രോഗമുണ്ടാകാതെ നമ്മൾ സൂക്ഷിക്കുന്നു പിന്നെ അഥവാ ഇനി എന്തെങ്കിലും ഒരു അതിനൊര് ക്ഷീണം പോലെ കണ്ടമാനം തോന്നിക്കുവാണെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞാലേ രോ അവിടെയുള്ള ഡോക്ടർസ് ഇവിടെ വരും വന്ന് അതിനുള്ള കുത്തിവെപ്പും മറ്റ് കാലിന് എന്തെങ്കിലും പൊട്ടലോ ഇതൊക്കെ ഉണ്ടെങ്കിലേ അത് അവര് ഡ്രസ്സ് ചെയ്യുകയും ചെയ്യും ആ ഡ്രസ്സ് ചെയ്തിട്ട് അതിനെ അതിനെ സംരക്ഷിക്കും അങ്ങനെ അതിൽ നിന്നും മുക്തമാക്കും പക്ഷെ മെയിനായിട്ട് ചെയ്യുന്നത് നമുക്ക് മനുഷ്യരിലേക്ക് ഈ ഒരു രോഗം ആ പശുവിന് ആ ഈ മൃഗങ്ങളുടെ രോഗം പകരാതെയിരിക്കാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മള് ഈ മൃഗങ്ങൾക്ക് രോഗമുണ്ടാകാതെ ഇരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഇതുതന്നെയാണ് കൂടെ അത് കിടക്കുന്ന സ്ഥലങ്ങൾ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി ഡെയിലി കഴുകുക കൂ ക്ലീൻ ചെയ്യുക ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ രോഗത്തിൽ നിന്നും രോഗത്തിൻ്റെ പ്രതിരോധ ശക്തിയാണ് അത് ഒന്ന് രണ്ടാമത് ബൈചാൻസിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ രോഗമുണ്ടായെങ്കിലേ നമ്മള് ഇങ്ങനെ സൂക്ഷിക്കുക നമ്മള് അതിനകത്ത് കയറുന്ന ആൾക്കാര് ഈ പി മന്ത് പോലത്തെ ഇത് ഇപ്പോൾ ഏത് മറ്റേ നമ്മുടെ വാതം പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അങ്ങനെ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ അവിടുന്ന് കൂട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനടി നല്ലപോലെ കാലും കൈയ്യും എല്ലാം കഴുകി കഴുകുക അങ്ങനെയൊക്കെ സൂക്ഷിക്കുവാണെങ്കിൽ ഒര് പടർച്ച വ്യാധിയും ഉണ്ടാകത്തില്ല